നമ്മുടെ പ്രദേശത്ത് കണ്ടു വരണതിപ്പോൾ റ്റൂര്ണമെന്റെന്നു പറഞ്ഞാൽ കേരളാ ബ്ലാസ്റ്റേസിന്റെ റ്റൂര്ണമെൻ്റൊക്കെയാണ് നമ്മളുടെ പ്രദേശത്ത് കണ്ടു വരാറുള്ളത് അതൊരു പതിനെട്ടു വയസ്സിനെ മുകളിലുള്ള പിള്ളേര്ക്ക് അത് റ്റൂര്ണമെന്റിൽ സേ പങ്കെടുക്കാം പതിനെട്ടു വയസ്സിനു താഴെ ഉള്ള പിള്ളേര്ക്കും റ്റൂര്ണമെന്റില് പങ്കെടുക്കാം അത് കാ ഫുട്ബോളാണ് അപ്പോൾ ഫുട്ബോളിന്റെ കേരളാബ്ലാസ്റ്റേസിന്റെ റ്റൂര്ണമെന്റ് വരാറുണ്ട് പിന്നെ ക്രിക്കറ്റ് ചെയ്യാന് തീരേ ചെറിയ ടൂര്ണമെന്റ് വരാനുള്ളത് പതിനെട്ട് വയസ്സിനു താഴെയുള്ള പിള്ളേര്ക്കും എടുക്കാം പക്ഷേ ഏറ്റവും കൂടുതലതിന് പുട്ടീറ്റ് ബാറ്റിംഗ് കുട്ടികള്ക്കാണെങ്കില് ബാറ്റിങ്ങ് സാധിക്കത്തില്ല ബോളിങ്ങേ പറ്റത്തുള്ളൂ എന്നാൽ മുതിര്ന്നവര്ക്ക് ബാറ്റിങ്ങ് സാധിക്കും അപ്പോൾ ഇങ്ങനൊരിതുണ്ട് പിന്നെ ഞാന് കാണുന്നത് അന്തദേശീയിനാണെങ്ങി ഞാൻ ഹോക്കി കാണാറുണ്ട് വോളീബോൾ കാണാറുണ്ട് വെര്സലിംഗ് കാണാറുണ്ട് ഓ വെര്സിലിങ്ങൊക്കെ നല്ല ഇഷ്ടമാണ് ഹോക്കിയധികം ഹോക്കിയും വോളീബോളൊക്കെയാണതിലിഷ്ടമാണ് അപ്പോൾ ഞാനതൊക്കെ പൊതുവേ കാണാറുണ്ട് പിന്നെ നമ്മൾ സമ്മ് പ്രദേശത്തൊക്കെ വരാറ് നമ്മളെ ഫുട്ബോളും ക്രിക്കറ്റുമൊക്കെയാണ് കൂടുതലായും വരാറ് കുട്ടികള്ക്ക് താത്പര്യം ഉള്ളത് എടുക്കാം അപ്പോൾ ഏറ്റവും കൂടുതല് പിള്ളേരെടുക്കുന്നത് ഫുട്ബോളായിരിക്കും ചില പിള്ളേർ മാത്രമാണ് ക്രിക്കറ്റ് എടുക്കാറുള്ളത് അപ്പം പല തവണയായിട്ട് ഫുട്ബോളിന്റെ റ്റൂര്ണമെന്റ് വരുമ്പോള് ഈ നാട്ടിലെ പിള്ളേരൊക്കെ ഫുട്ബോളാണെടുക്കാറ് കാരണം കേരളാബ്ലാസ്റ്റേസിന്റെ റ്റൂര്ണമെന്റിഷ്ടം പോലിവിടെ വന്നിട്ടുണ്ട് അപ്പോള് അവര്ക്കും ആ ഒരു റ്റൂര്ണമെന്റിനോട് നല്ല ഇഷ്ടമാണപ്പം അതാണ് ആ ഒരു റ്റൂര്ണമെന്റെടുക്കാന് കാരണം കാല്പ്പന്തു കളിയോടിഷ്ടമുള്ളവരുടെ നാടാണ് നമ്മുടെയീ നാട് അപ്പം ഈ കുട്ടികള് കാല്പ്പന്താണ് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് സെലക്റ്റ് ചെയ്തെടുക്കാറുള്ളത് അങ്ങനെ നോക്കുകയാണെങ്കില് ഇന്നീമിന്ന ഹോക്കിയങ്ങനെയായ അങ്ങനത്തെയൊന്നും അന്തര്ദേശീയ തലത്തിലുള്ള നടക്കാറുള്ള കായിക ഇനങ്ങളൊന്നും നമ്മുടെ റ്റൂര്ണമെന്റ്റായിട്ടീ നാട്ടിൽ വരാറില്ല പ്രത്യേച്ച് നടക്കുന്ന രണ്ട് കാര്യമാണ് ഫുട്ബോളും ക്രിക്കറ്റും മാത്രമാണ് ഈ നാടുകളില് വരാറ്